പ്രമേഹത്തെ നേരിടാൻ വേണ്ടി നമ്മളുടെ ഗ്രാമത്തിൽ ഒരുപാട് നാട്ട് വൈദ്യങ്ങളുണ്ട് അതിൽ ഒന്ന് എന്താണെന്നു വെച്ചാൽ ശർക്കര ഉപയോഗിച്ചിട്ടുള്ള കാപ്പി കുടിക്കുക അതായത് പഞ്ചസാര ഉപയോഗിക്കാൻ പറ്റാത്തതു കൊണ്ട് ശർക്കര ഉപയോഗിക്കുന്നത് വളരെ അധികം നല്ലതാണ് ഈ പ്രമേഹ രോഗികൾ ശർക്കര ഉപയോഗിച്ചിട്ടുളള ചായ കുടിക്കുക ശർക്കര ഉപയോഗിച്ചിട്ടുള്ള കാപ്പി കുടിക്കുക എല്ലാം നല്ല മികച്ച ഒന്ന് തന്നെയാണ് അതുപോലെ തന്നെ കാന്താരി മുളകിൻ്റെ ഉപയോഗം കറികളിലും ചമ്മന്തികളിലും എല്ലാം കാന്താരി മുളക് കൂടുതലായി കഴിക്കുന്നത് പ്രമേഹം ഒരു പരിധി വരെ കുറയ്ക്കാനും സ് നോർമലാക്കുവാനും സഹായിക്കുന്നുണ്ട് എന്നാണ് നാട്ടിൽ പൊതുവേ പറയുന്നത്